ഇന്നത്തെക്കാലത്ത് കുട്ടികൾ കൂടുതലായിട്ടും കമ്പ്യൂട്ടർ ഗെയിമുകളും വീഡിയോ ഗെയിമുകളും ഒക്കെ ആണ് കളിക്കുന്നത് അതുപോലെ ടി വിയിൽ ആൻഡ്രോയിഡ് ടി വിയിൽ ആണെങ്കിലും അതിനകത്ത് ഗെയിമുകൾ കളിക്കാറുണ്ട് കമ്പ്യൂട്ടറിനകത്താണെങ്കിലും സർഫിംഗ് റേസിംഗ് ഗെയിമ് കാർ റേസിംഗ് അങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കാൻ കളിക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടറിനകത്ത് പിന്നെ ഒത്തിരി ഐ ക്യു ലെവൽ ടെസ്റ്റുകൾ പോലത്തെ ഇത് സുഡോകു അങ്ങനത്തെ ഇത് പിന്നെ റേസിംഗ് ഗെയിമുകൾ ഫൺ ഗെയിമുകൾ അങ്ങനെ കുറേയൊക്കെ ഗെയിമുകൾ കളിക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം പിള്ളാർ ഫുൾ ടൈം പഠിത്തത്തിൽ നിന്ന് നിന്ന് കുറച്ചു ടൈം മാറി നിന്ന് അവർക്ക് കളിയിൽ ഏർപ്പെടാൻ ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത് അതിനുള്ള താല്പര്യപ്പെടുന്നു